ഇന്നുള്ള ആളുകൾ മലകളൊക്കെ ഇടിച്ച് വയലുകൾ എല്ലാം നികത്തി മലകളിടിച്ച് അവിടെ വലിയ ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകൾ വീടുകൾ എല്ലാം നിർമ്മിക്കുന്നു മലയ് ഇപ്പോൾ ആരും അധികം ആൾക്കാരും കൃഷിയൊന്നും ചെയ്യാറില്ല മലയാളികൾ വേസ്റ്റ് പിന്നെ റോഡിനരികിലൊക്കെ വേസ്റ്റുകളും അങ്ങനെയൊക്കെ കൊണ്ടുവെച്ച് നദികൾ നദികളൊക്കെ നികത്തി അവടെ വീടുകൾ അങ്ങനത്തെ ഒന്ന് പണിയുന്നു ഉണ്ടാക്കുന്നു നദികളിലെല്ലാം വേസ്റ്റുകളൊക്കെ കൊണ്ടുവെച്ച് നദി വൃത്തികേടാക്കുന്നു മലിനീകരി മലിനമാക്കുന്നു